കോമിക്കുകൾ വളരെ ഇഷ്ട്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പം മുതലേ വായിക്കുന്ന കോമിക്കുകൾ ടോംസിൻ്റെ ബോബനും മോളി എന്നു പറയുന്ന മാസികയിൽ വന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അത് വളരെയധികം നർമ്മ രസം കലർന്ന ഇതായിരുന്നു ടോംസിനെ ഞാനും ഒരു പത്രപ്രവർത്തകനായിരുന്നതുകൊണ്ട് ടോംസിനെ ആയിട്ട് വളരെയധികം കാണുവാനും സംസാരിക്കാനുവൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഹാസ്യ കൃതികൾ പുസ്തക രൂപേണ പല അവസരങ്ങളിലും വന്നിട്ടുണ്ട് അത് വാങ്ങിച്ചു ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോബനും മോളിയും ഓരോ ആഴ്ച്ചയിലും വരുന്നതിനു വേണ്ടി ആ മാസിക വരുന്നതിനു വേണ്ടി നോക്കിയിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആ പഴയ ആ കോമിക്കുകൾ ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെ എടുത്ത് വായിക്കുകയും അവരും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാരുതാർഥ്യത്തിന് സന്തോഷത്തിനും വക നൽകുന്ന ഒരവസരമാണ് ടോംസിൻ്റെ ആ വലിയ ഹാസ്യ പാടവത്തെ അങ്ങേയറ്റം പ്രകീർത്തിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്